ആ ഈ ടോപ് ഫോം അല്ലേ

അല്ല നിങ്ങള് ഞാന് അര മണിക്കൂറ് മുന്നേ പോട്ടെ ഒരു മണിക്കൂറ് മുന്നേ ആണ് ഞാനത് ഒരു ഒമ്പതര ആ ടൈമിലാണ് ഞാന് ഓഡർ ചെയ്തത് അല്ല ഇതുവരെ സാധനം ഇതുവരെ എത്തിയിട്ടില്ല അല്ല നിങ്ങള് അവിടുന്ന് പാക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അതൊരു എസ്ക്യൂസ് അല്ലല്ലോ ഞാൻ എൻ്റെ ഒരു വിശപ്പ് കൊണ്ടാണ് ഞാന് ഇപ്പം അത് ഓർഡർ ചെയ്തത് കാരണം നിങ്ങള് ആ സമയത്ത് തന്നെ എത്തിക്കാണ്ട് ഞാനത് നിങ്ങളൊരു ടൈമ് എന്നോട് പറഞ്ഞതായിരുന്നു പത്തര എന്നുള്ളൊരു ടൈം പറഞ്ഞത് ഇത് ഒരു അര മണിക്കൂർ വൈകി കാരണം എനിക്കൊരു ഒരു മനുഷ്യനല്ലേ വിശപ്പ് സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തന്നെ വിളിച്ചത് നിങ്ങള് കാരണം കറക്ട് ടൈമില് ഓർഡർ ചെയ്യുന്ന അതായത് ഡെലിവറി ചെയ്യുന്നവരും നല്ലൊരു റസ്റ്റോറൻറ് ആയത് കൊണ്ടാണ് നിങ്ങളോട് ഞാനത് ഓർഡർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ആ കറക്ട് ടൈമില് പക്ഷെ നിങ്ങളത് അര മണിക്കൂർ വൈകി അപ്പം ഞാന് ഇപ്പോഴും വിളിച്ചിട്ടില്ലെങ്കില് നിങ്ങള് ഇപ്പോഴും കൊണ്ട് വരില്ലായിരുന്നു നിങ്ങളവിടുന്ന് പാക്ക് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അല്ല അതൊരു അതൊരു കാര്യം അല്ലല്ലോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് ഇപ്പം സമയം വൈകുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഒരു കാരണമല്ല നിങ്ങളുടെ അവിടുന്ന് ഞാനിപ്പം ഓകെ ടൈ നിങ്ങളത് പറഞ്ഞ് വിട്ടവര് ട്രാഫിക്കില് ഡെലിവറി ചെയ്യുന്ന പയ്യൻ ഇപ്പം ട്രാഫിക്കിലോ അങ്ങനെ എന്തെങ്കിലും കുടുങ്ങുകയാണെങ്കില് ഓക്കെ കുഴപ്പമില്ല കാരണം കോഴിക്കോട് നിന്ന് വന്ന ഒരു ഏകദേശം ഒരു നല്ലൊരു വലിയ ഒരു സിറ്റി ആണ് കാരണം ഇവിടം വരെ എത്തിക്കണമെങ്കില് എന്തായാലും നല്ലൊരു പാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഓർഡർ ചെയ്ത ഒരു സാധനം ഇപ്പം നമ്മള് പാക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് അത് എവിടത്തെ ന്യായമാണ് ഉള്ളത് അല്ല എനിക്ക് ഇനി ഇപ്പം എന്തായാലും നിങ്ങള് വേഗം തന്നെ എത്തിക്കുകയാണെങ്കിൽ ഓക്കെ ഞാന് അരമണിക്കൂറ് കൂടെ വെയിറ്റ് ചെയ്യും ഇപ്പം പത്ത് പതിനൊന്ന് മണിയായി പതിനൊന്നര വരെ ഞാൻ വെയിറ്റ് ചെയ്യും ഞാനിപ്പം വിളിച്ചില്ലെങ്കില് നിങ്ങള് ഇപ്പഴും ഓർഡർ ചെയ്യില്ലല്ലോ നിങ്ങളെ പാക്ക് ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങള് അവിടെ നിൽക്കുകയേ ഉള്ളൂ അത് എനിക്കറിയാം കൊണ്ട് അതുകൊണ്ട് ഞാനൊരു അരമണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്യും അതു കഴിഞ്ഞിട്ടും എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങള് ക്യാൻസൽ ചെയ്തേക്ക് ഞാൻ വേറെ എവിടെയെങ്കിലും പോയി കഴിച്ചോളാം ഇനി നിങ്ങളുടെ അടുത്ത് നിന്ന് മേലാൽ ഞാൻ ഇനി ഒരു സാധനം അവിടെ വന്ന് കഴിക്കുകയോ ഓർഡർ ചെയ്യുകയോ ഞാനിപ്പം ആരോടെങ്കിലും നല്ലൊരു അഭിപ്രായം പറയുകയോ ഒന്നും ഞാൻ ചെയ്യില്ല ആ അതൊക്കെ നിങ്ങളുടെ മര്യാദ നിങ്ങളിപ്പം ഇനി അയക്കുകയോ അയയ്ക്കാണ്ടിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്തോ ഒരു അരമണിക്കൂർ കൂടെ ഞാൻ വെയിറ്റ് ചെയ്യും അതും കൂടെ കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞു ഞാൻ ഇനി എന്താ പറയുക വെയിറ്റ് ചെയ്യില്ല കെട്ടോ പറഞ്ഞില്ലാന്ന് വേണ്ട